എൻ്റെ കുട്ടിൻ്റെ സ്കൂളിലെ പ്രവേശനത്തിൻ്റെ ഫീസ് എന്ന് വച്ചാൽ മൂത്ത കുട്ടി ഗവൺമെൻറ് സ്കൂളാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ ഒരു പി ടി എ ഫണ്ട് എന്നുള്ള രീതിയിൽ മൊത്തമായിട്ട് ഒരു അയ്യായിരം രൂപയാണ് അടച്ചിട്ടുള്ളൂ അപ്പം അതിൽ കൂടുതലായിട്ട് വേറെ ഒരു പൈസയും ഗവൺമെൻറ് സ്കൂളിലേക്ക് ആയിട്ട് വേണ്ടി വന്നിട്ടില്ല പക്ഷേങ്കിൽ എളെ കുട്ടിയെ നമ്മൾ ഒരു പ്രൈവറ്റ് സ്കൂൾ ആണ് ചേർത്തിട്ടുള്ളത് അവർക്ക് ഒരു ഒരു കൊല്ലത്തിൽ മുപ്പതിനായിരം രൂപയാണ് ഉള്ളത് അതൊരു മൂന്നു ഘടുക്കളായിട്ടാണ് ഞാൻ അടച്ചത് ആദ്യം ഒരു അഡ്മിഷൻ ഫീസ് പോലെ ഒരു ആറായിരം രൂപയും പിന്നെ ബുക്ക് ബാഗ് യൂണിഫോമ് അങ്ങനെയൊക്കെ കൂടിയിട്ട് ഒരു അയ്യായിരം രൂപ പിന്നെ ഒരു രണ്ട് ഘടുക്കളായിട്ടാണ് അടച്ചത് അതിൽ കൂടുതലായിട്ട് ഉളെളരു പൈസ എന്ന് വച്ചാൽ അവരുടെ ആനുവൽ ആനുവൽ ഡേൻ്റെ ഒരു ചെറിയ ഒരു ആയിരം രൂപ പിന്നെ ഉള്ളത് പിന്നെ അതിൽ പൈസയൊന്നും വേണ്ടി വന്നിട്ടില്ല ഗവൺമെൻറ് സ്കൂളിനെ അപേക്ഷിച്ചിട്ട് മുപ്പതിനായിരം രൂപ ഒരു വലിയ പൈസ ആണെങ്കിൽ കൂടിയും ഒരു മൂന്നു ഘട്ടങ്ങളായിട്ട് അടക്കുമ്പോൾ നമ്മൾക്ക് മുപ്പതിനായിരം രൂപ ഒരു വലിയ ഒരു എമൗണ്ട് ആയിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഗവൺമെൻറ് സ്കൂളിൽ ആവുമ്പോൾ ഒറ്റ പ്രാവശ്യം അയ്യായിരം രൂപ അടച്ചാൽ പിന്നെ ഒരു കൊല്ലത്തെ കഴിഞ്ഞ്